സ്റ്റാട്ടേഴ്സ് ആണോ സ്റ്റാട്ടേഴ്സ് ആയിട്ട് രാവിലെ മോണിങ്ങിന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ട കറിയും പുട്ടും കടലയും പിന്നെ നിങ്ങക്കെന്തൊക്കെയാണ് മേഡം വേണ്ടത് നിങ്ങൾ പറയുന്ന മെനു ഇവിടെ പ്രൊവൈഡ് ചെയ്തു തരും എന്തു കറി വെജിറ്റബിൾ വേണ്ടാ എത്രണ്ണമാണ് വേണ്ടത് അപ്പം ബാക്കി വെജിറ്റെബിൾ മതി പിന്നെയോ എല്ലാ ബിരിയാണി ഉണ്ട് ഏത് ബിരിയാണി വേണംന്ന് പറഞ്ഞാൽ മതി

നൂറ് സദ്യ മുന്നൂറ് ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ടാവും

ഡെസേർട്സ് നമുക്ക് ഐസ്ക്രീംസെല്ലാം ഉണ്ട് അതുപോലെ തന്നെ പായ് ഇതിൽ പായസത്തിൽ തന്നെ വേറൊരു ഐറ്റോം കൂടിയുണ്ട് ഞങ്ങൾക്ക് ആദ്യം ഒരു എമൗണ്ട് തന്നിട്ട് നിങ്ങളത് ഉറപ്പിക്കണം അതിന് ശേഷം ബാക്കി നിങ്ങൾ പേയ്മെൻറ്റ് അന്ന് വൈകുന്നേരം തന്നാൽ മതി ആ ഓക്കെ കടി അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി മേഡം എല്ലാം ഉണ്ട് ഇവിടെ ആ ശരി